ആധുനിക സാങ്കേതിക വിദ്യകൾ മനുഷ്യജീവിതത്തെ ഇപ്പോൾ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് പഴയ കാലത്തേക്കാളും ആളുകളുടെ ജീവിത ഭാരം അതായത് ശാരീരികമായിട്ടുള്ള അധ്വാനം കുറെയൊക്കെ കുറയ്ക്കാനായിട്ട് സാങ്കേതിക വിദ്യകൾ ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ കൃഷി ഈ കൃഷി ചെയ്യുന്നവർ കർഷകർ കാളകളെ ഉപയോഗിച്ച് പാടം പൂട്ടുകയായിരുന്നു രണ്ടു കാളകളും ഒരാളുമായിട്ട് ഇപ്പം ആ സ്ഥലം ഒക്കെ പൂട്ടാനൊക്കെ ആയിട്ട് ട്രാക്ടറുകൾ ട്രക്കറുകൾ ഇങ്ങനെയുള്ള ട്രാക്ടറുകൾ ഉപയോഗിച്ച് പാടം പൂട്ടാൻ അതുപോലെ നെല്ല് കൊയ്തെടുക്കാൻ നെല്ലു മെതിക്കാൻ ആദ്യം ഇതൊക്കെ ആളുകളുടെ അധ്വാനം കൊണ്ടായിരുന്നു അപ്പോൾ ദിവസങ്ങളോളം നീളുന്ന പണികളൊക്കെ ഇപ്പോൾ മണിക്കൂറുകൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ടു തന്നെ പെട്ടന്ന് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ആധുനിക സാങ്കേതിക വിദ്യ കൃഷിയെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ യാത്രകൾ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ യാത്ര നടന്നിട്ടായിരുന്നു ആളുകൾ പോയി കൊണ്ടിരുന്നത് ഇപ്പം ഒരു വീട്ടിലെ വണ്ടിയിൽ വാഹനങ്ങൾ ഒന്നോ അതിലധികമോ വാഹനങ്ങൾ ഇരുചക്രമായിട്ടും മൂന്ന് ചക്രം നാല് ചക്രം ഇങ്ങനെയുള്ള വണ്ടികൾ കൂടുതലുണ്ട് അപ്പോൾ അവരുടെ യാത്ര സുഖകരമാക്കുന്നു പിന്നെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായ ഫോണിൻ്റെ ഉപയോഗം ആദ്യം കത്തുകൾ നമ്മൾ ദൂരങ്ങളിലൊക്കെയുള്ളവർക്ക് കത്തുകൾ അയച്ചായിരുന്നു വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഫോണും മൊബൈലും ലാൻഡ്ഫോണും മൊബൈൽ ഫോണുമൊക്കെ ആയി അപ്പോൾ സെക്കൻ്റുകൾ കൊണ്ട് എത്ര ദൂരമുള്ളവരെയും വിവരം അറിയിക്കാനും അവരായിട്ട് നമുക്ക് വിവരങ്ങൾ കൈമാറാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ സമയം നമുക്ക് ഒരു നല്ല ലാഭിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആധുനിക കണ്ടുപിടുത്തങ്ങൾ സഹായിക്കുന്നു ഇപ്പം അടുക്കളയിലേക്ക് വീട്ടിലുള്ള ഉപകരണങ്ങൾ വച്ച് നോക്കുവാണെങ്കിൽ അര കല്ലിലൊക്കെ അരക്കുന്ന അമ്മമാർക്ക് ഒക്കെ അങ്ങനെയായിരുന്നു പണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇപ്പോൾ അത് മിക്സി ഗ്രൈൻഡർ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കുറെ അധികം സമയ ലാഭം ആരോഗ്യത്തെയും സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു കറണ്ടിൻ്റെ ഉപയോഗം കറണ്ടിൻ്റെ ഉപയോഗം കൊണ്ട് വെള്ളം കോരണ്ട മോട്ടറു വഴി വച്ചിട്ട് വെള്ളം കോരാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം വലിച്ചു കോരേണ്ട ആവിശ്യം വരുന്നില്ല പിന്നെ വരുന്നത് മില്ലിലൊക്കെ കൊണ്ടു പോയിട്ട് നമ്മൾ അരിയു മറ്റു ധാന്യങ്ങളുമൊക്കെ പൊടിച്ചെടുക്കണോണ്ട് ഉരലും ഉലക്കയും ഉപയോഗിച്ചിട്ടുള്ള പണികളൊന്നും ഇപ്പോൾ അടുക്കളയിലേക്ക് നമുക്ക് ആവിശ്യായിട്ട് വരുന്നില്ല പിന്നെ കറൻറ് ഉള്ളതു കൊണ്ട് മണ്ണെണ്ണ മണ്ണെണ്ണ സ്റ്റവ് ഇങ്ങനെയുള്ളതിൻ്റെ ഉപയോഗങ്ങളില്ല വിളക്കുകളൊന്നും വേണ്ട ഇലക്ട്രിക്ക് ബൾബുകള് പിന്നെ ഗ്യാസ് ഗ്യാസ് സ്റ്റവ് അടുപ്പിലൊക്കെ ഊതി ഊതിയായിരുന്നു പണ്ടൊക്കെ അമ്മമാര് പാചകം ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഗ്യാസ് ഇൻഡക്ഷൻ കുക്കറ് ഇങ്ങനെയുള്ള ഓരോ സാങ്കേതിക കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ടാണ് അതൊക്കെ ഇപ്പം ഈ പിന്നെ ആളുകളുടെ ജീവിതം ആയാസ രഹിതമാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നതോടു കൂടിയിട്ട് ആളുകൾക്ക് കൂടുതൽ സമയ ലാഭം കിട്ടുന്നു മക്കളോടൊത്തും വീട്ടിലൊക്കെ ചെലവഴിക്കാനൊക്കെയായിട്ട് സമയം കിട്ടുന്നു ആരോഗ്യ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ പോലും വീട്ടിൽ ഇപ്പോൾ ഒറ്റക്ക് പേടിക്കണ്ട ഫോൺ ചെയ്താൽ മറ്റുള്ളവരെ അറിയിക്കാനും ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് വാഹന സൗകര്യങ്ങൾ ആശുപത്രി സൗകര്യങ്ങൾ ഇപ്പം ഒരു അത്യാസന്ന നിലയിലുള്ള രോഗിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഓക്സിജൻ കൊടുത്ത് രോഗി രോഗിയുടെ പരമാവധി രോഗിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഒക്കെയുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട് ഓപ്പറേഷനുകൾ മരുന്നുകൾ ഇങ്ങനെയുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും നമ്മടെ ജീവിതത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കുകയും പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഇതിനു സഹായകരമാക്കുകാണ് ചെയ്യുന്നത് അപ്പം പഴയ കാലത്തെ വച്ചു നോക്കുമ്പോൾ ആളുകളുടെ ജീവിതം ഒത്തിരി ഏറെ ലളിതവും സുഖകരവും ആക്കുകയാണ് അതുപോലെ കൂടുതൽ സമയം ആളുകൾക്ക് കുറച്ച് ജീവിതത്തിൽ ആസ്വാദനം ആസ്വാദനത്തിന് സമയം കിട്ടാത്തത് സമയം കിട്ടുന്നുണ്ട് എപ്പോഴും അടുക്കളയിലും പണിസ്ഥലത്തും ആയിരിക്കാതെ പാട്ടു കേൾക്കാൻ സിനിമക്ക് പോകാൻ മറ്റ് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് എൻജോ സ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഈ കണ്ടുപിടുത്തങ്ങളിലൂടെ ആളുകൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയും പുരോഗതിയിലേക്ക് ആളുകളെയും രാജ്യത്തെയും എല്ലാം നയിക്കാനായിട്ട് സഹായകരമാണ് അത് ആളുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്